ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വച്ചാൽ ഈ വോട്ടിങ് ബൂത്തെന്ന് പറയുന്നത് അവിടെ അടുത്തേക്കുള്ള അത്ര അടുത്തൊന്നും ആയിരിക്കത്തില്ല അത്കൊണ്ട് തന്നെ അവിടേക്ക് പോവാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്തെന്ന് വച്ചാൽ ഞങ്ങൾക്ക് മനസ്സിന് തൃപ്തിയുള്ള ഒരാൾ ആയിരിക്കില്ല സ്ഥാനാർഥി എന്നതാണ് മനസ്സിന് തൃപ്തിയുള്ള ഒരാളായാൽ മാത്രമേ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ഒരു ഒരു മനസ്സിന് ഒരു സമ്മതം തോന്നുകയുള്ളു പിന്നെ ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്ന് വച്ചാൽ ഇത് തന്നെയാണ് ഈ വോട്ടിങ് ബൂത്തിലേക്ക് എത്താനുള്ള പ്രശ്നം പിന്നെ ഇവരുടെ ഈ വോട്ട് ചോദിച്ച് വരുന്ന കുറച്ച് രീതികൾ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നമാണ് പിന്നെ എന്താണ് എന്താണ് പറയുക ഇവരുടെ ഇവർ എന്താണ് പറയുക ഉറപ്പില്ലാത്ത വാഗ്ദാനങ്ങളൊക്കെ നൽകി നൽകി ഞങ്ങളെ പറ്റിക്കും അതൊക്കെ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ തന്നെയാണ് എന്നാലും എറ്റവും കൂടുതൽ ഞങ്ങൾ പ്രശ്നം നേരിടുന്നത് ഈ ഗതാഗത സൗകര്യങ്ങൾക്ക് തന്നെയാണ്